വിദ്യാഭ്യാസത്തിൻ്റെ അഭാവം കാരണം നഗരങ്ങളിലെ അപേക്ഷിച്ച് ഗ്രാമങ്ങളിലെ ആളുകളുടെ ആവശ്യങ്ങൾക്ക് അംഗീകാരം കിട്ടുക എന്നുള്ളത് വലിയ കുഴപ്പമൊന്നുമില്ല എങ്കിലും ഇവിടുത്തെ സർക്കാർ സംവിധാനത്തില് നഗരങ്ങളിലുള്ള ഒരു ജനങ്ങളെ അപ്രോച്ച് ചെയ്യുന്ന പോലെയല്ല ഗ്രാമങ്ങളിലെ ജനങ്ങളുടെ അപ്രോച്ച് കാരണം ഇവര് ഗ്രാമീണ ജനങ്ങള് കുറച്ച് വിദ്യാഭ്യാസം കൂടുതലുള്ളവരും പിടിപാടുകള് കൂടുതൽ ഉള്ളവരും ആയതുകൊണ്ട് അവരോടു കാണിക്കുന്ന രീതിയല്ല ഈ നാട്ടിലെ സർക്കാര് അല്ലെങ്കിൽ ഓഫീസുകളിലെയൊക്കെ ജനങ്ങള് ഈ സാധാരണ ഗ്രാമങ്ങളിലെ ജനങ്ങളോട് കാണിക്കുന്നത് അവരോട് എന്ത് കാണിച്ചാലും ആരും ചോദിക്കാനും പറയാനും ഇല്ല എന്നുള്ള ചിന്താഗതിയും ഉള്ളത്കൊണ്ട് ഗ്രാമീണ ജനത ഈ പ്രശ്നങ്ങൾക്ക് ഒരു നേരിട്ട് തന്നെ അവര് പ്രശ്നങ്ങൾ അഭിമുഖികരിക്കുന്നുണ്ട് എങ്കിലും അതാത് ജനങ്ങള് അതാത് നാട്ടിലെ ജനങ്ങളെ അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ അതിനെ അതിജീവിക്കാൻ വേണ്ട അവിടത്തെന്നെയുള്ള ഏതെങ്കിലും നേതാക്കൻമാരെയോ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരെയോ ഒക്കെ കണ്ട് കാര്യങ്ങൾ ചെയ്തു ഒരുവിധം ഭംഗിയായി പ്രശ്നങ്ങളൊന്നുമില്ലാതെ കൊണ്ടുനടക്കുന്നുണ്ടെന്നുള്ളതാണ് കേരളത്തിലെ അവസ്ഥ